ഞാൻ ഫ്ലിപ്ക്കാട്ടിൽ നിന്നൊരു പാന്റ് ഓഡറ് ചെയ്തിരുന്നു അപ്പോൾ അത് നിങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഡെലിവർ ആക്കുമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ നാല് ദിവസം എടുത്തു അത് ഡെലിവർ ആക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഞാൻ അത് കൈപ്പറ്റി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പാന്റ് ആയിരുന്നില്ല ഒരു ടീഷർട്ട് ആയിരുന്നു അപ്പം ഞാൻ ഓഡ്റ് ചെയ്തത് പാൻറ്റും നിങ്ങളയച്ച് തന്നത് ഒരു ടീഷട്ടുമായിരുന്നു അപ്പോൾ എനിക്കതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ച് കൊറിയർ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിനി നിങ്ങളുടെ കമ്പനിയിൽനിന്ന് വേറെയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്ത പാൻറ്റിന്റെ ആ പൈസ എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടേണ്ടതാണ് കാരണം ഞാൻ വേടിച്ചത് ഒര് പാൻറ്റും പക്ഷെ നിങ്ങൾ അയച്ച് തന്നത് ടീസറ്റും ഞാൻ മേടിച്ചതും നിങ്ങളയച്ച് തന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് റീഫണ്ട് ചെയ്ത് കിട്ടണം അതുകൊണ്ട് ഇതിന്റെ എൻ്റെ ഓഡ്റ് ഐ ഡി അറുപത്തിരണ്ട് എൺപത്തിരണ്ട് പതിനഞ്ച് മുപ്പത്തിമൂന്ന് നാല്പത്തിനാല് എന്ന ആ എന്ന ഈ ഐ ഡിയിലാണ് ഞാൻ ഓഡ്റ് ചെയ്തത് അപ്പോൾ എനിക്കത് റീഫണ്ട് കിട്ടണം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു പാൻറ്റിന് ആ മുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടേണ്ടതാണ്